വികസനത്തിൻ്റെയും വളർച്ചയുടെയും കാര്യത്തിൽ ഇടുക്കി ജില്ല ആ ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആ ഇപ്പോൾ കാരണം ആ ഇപ്പം തന്നെ ആ മെട്രോ ആ ട്രെയ്ൻ ആ ട്രെയ്ൻ പാളം അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങളോ നമ്മുടെ ഇടുക്കി ജില്ലയിൽ അവൈലബ്ൾ ആയിട്ടില്ല ആ ഇപ്പം ഒക്കെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഉണ്ട് എങ്കിൽ പോലും അതിന് ഒരു എന്താവോ അതിന് യാതൊരു തരത്തിലുള്ള ഒരു ബലവും ഇല്ല കാരണം ഇടുക്കി ജില്ലയിലെ ഹോസ്പിറ്റലുകളിൽ ചെന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകൾ ആ ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളെ ഇത്രയും പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധി ഉള്ളത് കാരണം ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്നു കഴിയുമ്പോഴത്തേക്കും ആ അവർ അവർ അവിടെ അതിന് അതിന് പറ്റിയ ഒരു ആ മെഡിസിൻസോ അല്ലെങ്കിൽ അതിന് പറ്റിയ നിങ്ങൾ അതിന് ഹോസ്പിറ്റലിൽ ആ വേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിടുകയാണ് പ്രൈവറ്റ് പോലെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടു വിടുക ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും കൂടുതൽ കോഴ്സുകളും ഉയർന്ന ജോലിക്കുള്ള സാധ്യതകളും ഉള്ളത് പുറത്തേക്ക് ഒക്കെയാണ് അപ്പം അതും ഒരു പ്രധാന വെല്ലുവിളിയാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ട് പിന്നെ കാട് ഒക്കെ പ്രദേശമായതു കൊണ്ട് അപ്പം അതിന് അനുസരിച്ചുള്ള പ്രശ്നങ്ങളും കാട്ടുമൃഗങ്ങളും വന്യജീവികളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും ഒക്കെ ഇടുക്കി ജില്ലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് ആ ഒരു എന്താണ് പറയുക വന്യജീവികളെ കൊണ്ടുള്ള ഉപദ്രവമാണെങ്കിൽ പോലും ഒരുപാട് തന്നെ ഒരുപാട് ഒരുപാട് കൂടുതൽ ആയിട്ടും ഇട്ക്കി ജില്ലയിൽ കാണപ്പെടുന്നുണ്ട് ആ ആന ആന പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു അപകടം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് ഒരു ആ പെട്ടെന്ന് ഒരു എന്താണ് പറയുക ആ ഒരു മുൻകരുതലിനുള്ള ഒരു മുൻകരുതലിനായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും അവിടെ ഈ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടില്ല ആ പിന്നെ സ്ഥലത്തിൻ്റെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടുക്കി ജില്ലയിൽ കൂടുതലും ആയിട്ട് ഉണ്ടാവാറുണ്ട് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും തന്നെ മഴ പെയ്തു കഴിയുമ്പം തന്നെ ഈ മണ്ണിടിയലും ആ പ്രളയം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഈ ഇടുക്കി ജില്ല നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇടുക്കി ജില്ല നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ പ്രതിസന്ധിയുണ്ട് ഇടുക്കി ജില്ലയിൽ ആ പിന്നെ രാഷ്ട്രീയപരമായിട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയിൽ ഉണ്ടാവുന്നുണ്ട് ആ പിന്നെ ആ അത്രയേ ഉള്ളു